അതെ അതെ അതെ നമുക്കിപ്പോൾ ഒരു ബുക്ക് തന്നെയായിട്ടെടുക്കുമ്പോൾ നമുക്കങ്ങനെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊന്നും കൊടുക്കാൻ പറ്റത്തില്ല നമ്മുടെ നഷ്ടത്തെ ബാധിക്കും സാറൊരു രണ്ടുമൂന്നു ബുക്ക് എടുക്കാനാണെങ്കിൽ ഏതുതരം ബുക്കുകളാണ് സാറിന് വേണ്ടത് ആ ഒരു നമുക്ക് സെറ്റായിട്ട് എടുക്കുമ്പോൾ തന്നെ നമ്മള് ഒരു ബുക്കില് ഇരുപതു ശതമാനം ഡിസ്കൗണ്ട് വെച്ച് ആഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇരുന്നൂറ് രൂപയുടെ ബുക്കാണെങ്കിൽ നമുക്കൊരു നൂറ്ററുപത് നൂറ്റമ്പത് രൂപക്കൊക്കെ നമുക്ക് തരാനായിട്ട് സാധിക്കും ആ കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് സാറിനിപ്പം വല്ല ലൈബ്രറിയിലോട്ടോ അങ്ങനെ വല്ല ആവശ്യത്തിന് വല്ലതും ആണോ

ആ ഓക്കേ ഓക്കേ അപ്പോത്തേക്കിനും ബുക്കുകൾ തരാനായിട്ട് സാറ് നേരിട്ട് വരുവോ അല്ലേൽ ഞങ്ങളങ്ങോട്ട് അയയ്ക്കണോ ആ നമുക്ക് ഓർഡർ ചെയ്യുന്നത് നമ്മള് ഡെലിവറി ചെയ്യും അഡ്രസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നമ്മൾ കൊറിയർ അയയ്ക്കും ആ

ഇല്ലില്ല അത് നമ്മൾ ഫ്രീയായിട്ടാണ് ചെയ്യുന്നത് സാറ് ഒരു കുറച്ചു സാർ കുറച്ചു ബുക്കുകൾ അധികമായിട്ട് എടുക്കുവാണെങ്കിൽ നമ്മൾ ഫ്രീയായിട്ടാണ് ചെയ്യുന്നത് ഒരു ബുക്കിനൊന്നും അങ്ങനെ ഡെലിവറി ഓപ്ഷൻ ഇല്ല കുറച്ചു ബുക്കുകൾ സെറ്റായിട്ട് എടുക്കുവാണെങ്കിൽ ഒരു പത്തു ബുക്കൊക്കെ എടുക്കുവാണെങ്കിൽ നമുക്ക് ചെയ്തുതരാം ആ ഓക്കേ ആ ഓക്കേ താങ്ക്യൂ വിളിച്ചതിന്